ഹലോ ഞാനൊരു സ്മാർട്ട് ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോള് എനിക്കത് ഓർഡറില് എനിക്കൊരു മിസ്റ്റേക്കുണ്ട് ഞാനത് എനിക്കത് കാർട്ടിലേക്ക് ഞാൻ തിരിച്ചിടുകയാണ് ഞാന് ആ ഫോണിനെക്കുറിച്ച് ഞാന് ഒരു മൂന്ന് നാല് പേരോട് ചോദിച്ചപ്പോള് അവരതിന് നെഗറ്റീവ് റിപ്പോർട്ട്സ് എനിക്ക് തന്നായിരുന്നു അപ്പോള് ഞാനത് അന്വേഷിച്ചായിരുന്നു ഫ്ലിപ്പിലും അല്ലാതെ വേറെ കുറേയില് കയറി ഞാന് അന്വേഷിച്ചപ്പോള് ആ ഫോണില് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെടാതെ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നായിരുന്നു അപ്പോള് ഞാനത് തിരിച്ച് അയക്കുകയാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോള് അവര് പറഞ്ഞത് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ക്യാമറ അത്ര പോരാ പിന്നെ സ്റ്റോറേജ് കുറവായിരിക്കും നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി എങ്ങാണ്ടെ സ്റ്റോറേജ് വരുന്നുള്ളൂ അപ്പോള് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ പെട്ടെന്ന് ഫോണ് ഹീറ്റാകും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാനത് താല്പര്യമില്ലാതെ നില്ക്കുകയാണിപ്പം അപ്പോള് ഞാൻ വേറെയൊരെണ്ണം ബുക്ക് ചെയ്യാൻ വേണ്ടി നില്ക്കുകയാണ് അപ്പം ഞാനിത് തിരിച്ച് കാര്ട്ടിലേക്ക് തന്നെയിടാൻ വേണ്ടി നില്ക്കുകയാണ് എന്തായാലും ഞാന് ഒരു വൺ വീക്കിനുള്ളിൽ ഞാനത് ചെയ്തിടാം ഇപ്പോള്ത്തന്നെ ക്യാഷ് വേറെയൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഞാന് എന്തായാലും അത് ചെയ്യാം ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോള് അവരിങ്ങനെയാണ് നെഗറ്റീവ് റിപ്പോർട്സാണ് എനിക്ക് തന്നത് പിന്നെ നമ്മളെടുത്ത് കഴിഞ്ഞിട്ട് അത് നമുക്കത് മോശമായി തോന്നിക്കഴിഞ്ഞാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ എന്നാല്